എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നൊരു ജനപ്രധിനിധിയെന്നു പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം ഒരു മുൻ ലോക്സഭാ മെമ്പറായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമ്മളെ നാടിനു വേണ്ടിയിട്ട് പല നല്ലകാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് വച്ചുകഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള വികസനപ്രവർത്തനങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിപ്പോൾ വിദ്യാഭ്യാസം ആയാലും കാർഷിക രംഗമായാലും മറ്റു സാമൂഹിക കാര്യങ്ങളായാലും എല്ലാത്തിലും വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മുൻതൂക്കം നൽകിയിട്ടുണ്ട് അദ്ദേഹം ഒരു കോൺഗ്രസ്സ് പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് രാഹുൽ ഗാന്ധി